നമ്മളിപ്പൊരു എന്താ നേരിലും തുന്നലൊക്കെ ചെയ്യുമ്പം നമുക്കതിൻറ്റേതായ നിറങ്ങളുണ്ടല്ലോ ഇപ്പം എനിക്കിഷ്ടം റെഡ്ഡും പിന്നെ റോസുമാണ് അപ്പം ആ ആ നിറങ്ങളാണെനിക്കേറ്റവും കൂടുതലിഷ്ടം അപ്പം ഞാനതെടുക്കും അപ്പം ഈ തുന്നലെന്നൊക്കെ അതൊക്കെ ഉപയോഗിച്ച് ഞാൻ തുന്നുകയും നെയ്ത്തൊക്കെ ചെയ്യും അപ്പം നമുക്കിതൊരു പ്രൊജക്റ്റായിട്ട് തന്നു കഴിയുമ്പം നമ്മളത് ചെയ്ത് ചെയ്ത് കാണിക്കും നമുക്ക് മികച്ചൊരു കളർ തന്നെ അത് അതിനകത്തെടുക്കുകയും ചെയ്യും അപ്പം നമുക്ക് നമുക്കിപ്പം തരുന്ന നിർദ്ദേശങ്ങളിൽ നമുക്കിഷ്ടമുള്ള കളറുകൾ എടുക്കാനൊക്കെ പറയും നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ചെയ്യുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നിറം എടുക്കുന്നു എനിക്കിഷ്ടം ഈ രണ്ട് നിറമാണ് ഇതു തന്നാ രണ്ട് നിറം എടുക്കും ഇത് മൊത്തം നമ്മളാ നമുക്കായ ആവശ്യം ഉണ്ടിനി നമ്മൾ മറ്റുള്ളവർക്കുമാണ് നിർദ്ദേശങ്ങൾ നമുക്ക് മറ്റുള്ളവർ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മളതിൽ നോക്കണം നമ്മൾ നെയ്തലൊക്കെ ചെയ്യുകയും ചെയ്യുന്നു അതു പോലെ തന്നെ നമ്മൾ ഇപ്പം എന്തൊരു ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും ചെയ്തോളും ഇപ്പം നമ്മൾ നെയ്ത്തിലെയും തുന്നലിൻറ്റെയും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ള നിറം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു വെച്ചാലൊരു എന്താ റെഡ്ഡും പിങ്കുമാണ് എനിക്ക് രണ്ട് നിറമാണ് ഇഷ്ടം പിന്നെ എനിക്കിഷ്ടമാണ് നിറങ്ങളുണ്ട് നമ്മളപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളങ്ങനെയൊക്കെ ചെയ്യും അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ഓരോ ഇങ്ങനെ നമ്മൾ പല നിറങ്ങളുപയോഗിച്ച് നമ്മൾക്ക് ഈ തുന്നലും നെയ്തലൊക്കെ നമുക്ക് കൈ കൊണ്ടു തന്നെ ചെയ്യാൻ പറ്റും നമുക്കിഷ്ടമുള്ള നിറം നമുക്കെടുക്കാം ഇപ്പം അവർ നമുക്ക് പറയുന്നവരെ നമുക്ക് നമ്മളൊരു നിറം പറഞ്ഞാൽ നമ്മളാ നിറം വെച്ച് നമ്മൾ ചെയ്യണം നമ്മൾ കൈ വെച്ച് തുന്നലും നെയ്തൊക്കെ ചെയ്ത് കയ്യുമ്പോഴത്തേന് നമുക്ക് ചെയ്തു കഴിയാം എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയും കളർ പാൻറ്റലുകൾ തിരഞ്ഞെടുക്കുക നമുക്കേതൊക്കെ കളർ ഏതു പാൻറ്റിൽ അപ്പോൾ ഓരോന്നിനോരോ പാൻറ്റലുണ്ടല്ലോയെന്നോർത്തിട്ടും അതിനൊക്കെ നമുക്കു തന്നെ തിരഞ്ഞെടുക്കാനൊക്കെ പറ്റും നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട് നമുക്കിഷ്ട നമുക്കിഷ്ടമുള്ള നിറ എടുക്കാം നമുക്കതൊക്കെ ചെയ്ത് നമുക്ക് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം നമ്മളത് പ്രൊജക്റ്റ് ചെയ്ത് നമ്മളത് ഇവരെ കാണിക്കുകയും ഇവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാ മറ്റേ നമ്മൾ നമുക്കിപ്പം സാധാരണ നിറങ്ങളൊക്കെ സാധാരണ നിറങ്ങളെന്നു വെച്ചാൽ പച്ച മഞ്ഞ ഓറഞ്ച് അങ്ങനെ പല നിറങ്ങളാണ് നമുക്ക് നമുക്കൊക്കെയെടുക്കാം പക്ഷെ നമുക്കേറ്റവും ഇഷ്ടമുള്ള നിറമാണ് നമ്മൾ ഇതിൽ നിന്നെടുക്കുന്നതെന്നു വെച്ചാൽ ആ ഒരു നിറത്തെ കുറിച്ച് നമുക്ക് നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മൾ ഇഷ്ടത്തിന് നിറം എടുത്തു ചെയ്തു പക്ഷെ നമ്മളിഷ്ടപ്പെടുന്ന നിറം മറ്റുള്ളവർക്കിഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം അപ്പം എന്താ ഓരോന്നിന് ഓരോ നിറം വെച്ച് നമ്മൾ ചേരുന്നു തുന്നലിന് വേറൊരു നിറം വെച്ചു ചെയ്യാം നെയ്തൽ നമ്മൾ തുന്നിച്ച് അങ്ങനെ പലതരം മിക്സ് ചെയ്ത് അപ്പം പിന്നെ നമ്മളൊരെണ്ണം തിരഞ്ഞെടുത്തിട്ട് പാത്രം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കയും ചെയ്യുന്നു നമ്മൾ നിറങ്ങൾക്കിഷ്ടം ഉള്ളത് നിറങ്ങളേതൊക്കെയാണതൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ അതൊരു എന്താ ഈവൻറ്റായിട്ട് നമ്മൾ ചെയ്യും ഇപ്പം നെയ്തലിലൂടെ തന്നെയാണ് നമ്മൾ തുന്നലും നമ്മൾ പ്രൊജക്റ്റ് നമുക്ക് നമ്മളത് ചെയ്യുമെന്നൊക്കെ ചെയ്യുന്നത് നമ്മൾ നമുക്ക് നമ്മൾ സാധാരണ നിറങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അതു പോലെ തന്നെ എല്ലാ നിറങ്ങളൊക്കെ നമുക്കുപയോഗിക്കാനൊക്കെ നമുക്കത് പറ്റുക